കൃഷിക്കായി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിരവധിയായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിൽ ഇപ്പം അത് പല ബോഡുകൾ വഴിയായിട്ടാണ് ആ സബ്സിഡികൾ നമുക്ക് അതുപോലെ തന്നെ വായ്പകളും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് കൃഷി ആവശ്യത്തിന് വേണ്ടിട്ട് നെബാട് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട് അതുപോലെ പിന്നെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി നമുക്ക് വായ്പ ലഭിക്കുന്നുണ്ട് അതുപോലെ നാഷണലൈസ്ഡ് ബാങ്കുകൾ വഴി നമുക്ക് വായ്പകൾ ലഭിക്കുന്നുണ്ട് അതിനു പിന്നെ പിന്നെ അവ എല്ലാം നമുക്ക് ലോൺ എടുക്കുന്ന വായ്പ എടുക്കുക എന്നത് വളരെ എളുപ്പമാണ് പക്ഷേ അത് തിരിച്ചടക്കുക എന്ന കാര്യത്തിലാണ് ബുദ്ധിമുട്ട് ഇക്കാര്യത്തിൽ സംസ്ഥാന ഗെവൺമെൻറ്റോ അല്ലെങ്കിൽ കേന്ദ്ര ഗെവൺമെൻറ്റോ വിവിധ ബോഡുകൾ വഴിയായിട്ട് നമുക്ക് സബ്സിഡികൾ നൽകുന്നുണ്ട് അപ്പോൾ അതിൽ ഉദാഹരണമാണ് കോഫി ബോഡ് കോഫി ബോഡിൽ നിന്ന് നമുക്ക് അങ്ങനെ കുളം കുഴിക്കാനോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഗോഡൌൺങ്ങൾ സ്ഥാപിക്കാനോ സ്പ്രിങ്ക്ളറ് സ്ഥാപിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് സബ്സിഡികൾ തരുന്നുണ്ട് ഏകദേശം ഒരു ജെനറൽ കാറ്റഗറിയിൽ നാൽപത് ശതമാനം ഒക്കെ സബ്സിഡി ലഭിക്കുന്നു അതുപോലെ എസ് സി എസ് ടി വിഭാഗം ആണെങ്കിൽ അത് എഴുപതും തൊണ്ണൂറ് ശതമാനം വരെ സബ്സിഡികൾ ലഭിക്കുന്നുണ്ട് അത് അതുപോലെ നേലം ബോഡിൽ നിന്ന് നമുക്ക് അതുപോലെ പിന്നെ റബ്ബർ ബോഡിൽ നിന്നും ഒക്കെ റബ്ബർ ബോഡിലൊക്കെ പ്ലാസ്റ്റിക്കിടാനും അതുപോലെ മെഷീൻ വാങ്ങാനും ഒക്കെ സബ്സിഡികൾ നൽകുന്നുണ്ട് അതുപോലെ പിന്നെ ഈ കോഫി പിന്നെ ഏലം ബോഡിൽ നിന്നും നമുക്ക് പലതരത്തിലുള്ള സ്കീമുകളിലൂടെ നമുക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് അത് ജെനറൽ വിഭാഗത്തിൽ നാൽപ്പത് ശതമാനത്തോളം നമുക്ക് അതിനുള്ള ആനുകൂല്യങ്ങൾ പൊതുവെ നൽകി വരുന്നുണ്ട് ഈ വായ്പ എടുക്കുന്ന കാര്യത്തിൽ വായ്പയെടുക്കാൻ പലതരത്തിലുള്ള സംവിധാനങ്ങളും നമുക്ക് ലഭ്യമാണെങ്കിലും അത് തിരിച്ചടവ് തന്നെ സംബന്ധിച്ച് വളരെയേറെ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട് കാരണം ഈ പിന്നെ ഒരു ഓരോ വർഷം അവസാനം ആകുമ്പോൾ മാർച്ച് മുപ്പത്തി ഒന്നൊക്കെ ആവുമ്പോഴെക്കും ഈ തിരിച്ചടവ് പലപ്പോഴും ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വരുമാനം ലഭിക്കാതെ ഒരു പ്രത്യേകിച്ച് ഈ മഴക്കൾ കടുതീ മൂലോ അല്ലേ വരൾച്ച മൂലമോ അപ്പോൾ അല്ലെ അതുപോലുള്ള പ്രകൃതിയ നാശങ്ങൾ മുഖേന നമുക്ക് ഇത് പിന്നെ ഈ വായ്പുകൾ വരുമാനം നഷ്ടമാവുകയും വായ്പ തിരിച്ചടയ്ക്കാൻ സമയത്ത് വായ്പ തിരിച്ചടക്കുവാൻ ഒക്കെ ബുദ്ധിമുട്ടൊക്കെ വരുകയും ചെയ്യും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സംസ്ഥാന ഗെവൺമെൻറ്റ് അല്ലെങ്കിൽ കേന്ദ്ര ഗെവൺമെൻറ്റൊ ഈ പലിശ ഒഴിവാക്കി ലോൺ പുതുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി തരുന്നുണ്ട് അത്തരം അപ്പം ഇതുപ വിവിധ ചുരുക്കി പറഞ്ഞാൽ സർക്കാരിൻ്റെ വിവിധങ്ങളായ ബോഡുകളിലൂടെ നമുക്ക് വളരെയേറെ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് പലതരത്തിലുള്ള സബ്സിഡികൾ നമുക്ക് നൽകുന്നുണ്ട് അതെല്ലാം കൃഷിക്കാരായ ഞങ്ങളെ സംബന്ധിച്ച് വളരെയേറെ പ്രയോജനകരമാണ്